ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മൾ കറക്റ്റായിട്ട് കറക്ട് സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം കറക്ട് സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്ര അതായത് രാവിലെ നമ്മളിപ്പം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലത്തെ ചായ കുടിക്കുക കറക്ട് ഒരു പന്ത്രണ്ടര ഒരുമണിക്കുള്ളിൽ നമ്മൾ ഉച്ചത്തെ ഭക്ഷണം കഴിക്കുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ ചായ പരമാവധി ഒഴിവാക്കുന്ന ചായയും കാപ്പിയും പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നമ്മളുടെ ശരീരത്തിന് നല്ലത് പിന്നെ രാത്രിയിലത്തെ ഭക്ഷണം കറക്ട് എട്ട് മണി ഏഴ് മണിക്കുള്ളിൽ കഴിക്കുക അതായത് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓ ഉറങ്ങാൻ പാടുള്ളു അതായത് രണ്ട് മണിക്ക് നമ്മൾ രണ്ട മണിക്കൂർ എന്തെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പാടുള്ളു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും നമ്മൾ കറക്ട് അതായത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം വെള്ളം കുടിക്കും ഒരു ദിവസം ഒരാൾ രണ്ട് മൂന്ന് രണ്ട് ലിറ്റർ എങ്ങനായാണെങ്കിലും കുടിക്കണം പക്ഷെ മൂന്നാല് ലിറ്റർ കുടിക്കണമെന്നാണ് എല്ലാവരും പറയുക പക്ഷെ രണ്ട് മൂന്ന് ലിറ്റർ എങ്ങനെയാണെങ്കിലും കുടിക്കണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് അതായത് നല്ലവണ്ണം എക്സസൈസ് ചെയ്യുക ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചപാടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതായത് എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്താൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും ഒന്നും അസുഖങ്ങളും നമ്മളിൽ നിന്ന് പോകുന്നതാണ്